ഡോക്ടർ ആണോ ആ എനിക്ക് പിന്നെ ഇന്ന് ബുക്കിംഗ് ഉണ്ടോ എനിക്ക് എന്തോ പിന്നെ ഭയങ്കര പനിയായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസമായി മഴ ആ തൊഴിലുറപ്പ് പണിക്ക് പോയായിരുന്നു അപ്പം തോട്ടിലായിരുന്നു പണി തോട്ടിൽ പിന്നെ വരമ്പ് വയ്ക്കുന്നത് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അതിൻ്റെ പണിയായിരുന്നു ആ മേല് കയ്യും വേദന തുമ്മൽ തലവേദന ഒക്കെ ഉണ്ട് ആ പിന്നെ ആ എനിക്ക് പിന്നെ ഹലോ എനിക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പം വായൊക്കെ ഭയങ്കര കയ്പ്പാണല്ലോ പിന്നെ ഞാൻ രണ്ട് മൂന്ന് പാരസെറ്റമോളും കഴിച്ചിരുന്നേ ഈ പനിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എനിക്ക് പിന്നെ വിശപ്പില്ലായ്മ ഭയങ്കര മേലും കയ്യും വേദന ശരി ഓക്കെ

ഹലോ ഹലോ ഓക്കെ മ് ആ ശരി ശരി